ഞാൻ ആ ഞാൻ സ്വപ്ന ആണ് ഞാൻ ഗുജറാത്തിൽ നിന്ന് കേരളത്തിൽ വന്നതാണ് അപ്പോഴത്തേക്ക് കേരളത്തിലെ എവിടെയാണ് നല്ല ബീച്ചും നല്ല ട്രഡീഷണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ എവിടെയാണ് നല്ല സ്ഥലം എന്ന് പറയാമോ മലമ്പുഴയിൽ ഏത് ഭാഗത്തായിട്ടാണ് ഞങ്ങൾ വരേണ്ടത് ഓ അയ് സീ കേരളത്തിൻ്റെ ട്രഡീഷണലായിട്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലേ നമ്മൾ സ്റ്റേ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഇവർ ഇത് പെർഫോം ചെയ്യുമോ ഈ കലകളൊക്കെ ഡാൻസും ഒക്കെ പിന്നെ കല്യാണത്തിൻ്റെയൊക്കെ തലേ ദിവസത്തെ ആ ഒരു ട്രഡീഷൻ കണ്ടു മനസ്സിലാക്കാനായിട്ട് നമുക്കായിട്ട് തന്നെ ഇവർ ഇത് പെർഫോം ചെയ്യുമോ അല്ലേ ഈ ഡാൻസൊക്കെ മൈലാഞ്ചി കല്യാണം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അങ്ങനത്തെയൊക്കെ ഈ മാർഗം കളി ഏതെങ്കിലും ഒരു മതത്തിൻ്റെ റിലേറ്റഡ ആണോ ക്രിത്യൻസിൻ്റെ അങ്ങനെ ആണോ ഈ മൈലഞ്ചി ഇടൽ എന്ന് പറയുന്നത് മുസ്ലിംസിൻ്റെ ഉണ്ടല്ലോ അത് കാണാൻ പറ്റുമോ ഓക്കെ എല്ലാ റിലിജിയസ് ഓക്കെ എത്ര ദിവസത്തേക്ക് നമുക്ക് ഈ ഒരുമാതിരി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒന്നു കാണാൻ പറ്റും പിന്നെ ബോട്ട് സർവീസ് ഉണ്ടല്ലോ ഇങ്ങനെ വള്ളത്തിലെ അങ്ങനത്തെ ഇത് എൻജൊയ് ചെയ്യാൻ പറ്റുമോ കായലൊക്കെ ഇന്ന് കാണാനും ഒക്കെ ആയിട്ട്

ഓക്കെ അപ്പം നമ്മൾ വന്നു ഇറങ്ങിയിട്ട് ഇറങ്ങുമ്പോൾ നമ്മളെ വന്നു പിക്ക് ചെയ്തു കൊണ്ടു പോവുമായിരിക്കും അല്ലേ ഫുഡ് എല്ലാം നമ്മുടെ കേരള രീതിയിലുള്ള ഫുഡായിരിക്കും അല്ലേ അതോ ഓക്കെ താങ്ക് യു അയ് വിൽ കോൾ യു ലേറ്റർ